സത്യം പറഞ്ഞാൽ മനസ്സ് അറിഞ്ഞ് ഡാൻസ്സ് ചെയ്യുന്ന ഒരു ഡാൻസറെ അത്രയും ആകാംഷയോടെ അല്ലെങ്കിൽ അത്രയും സ്നേഹത്തോടെ നോക്കിയിരിക്കാത്ത ഒരു ഒരു പ്രേക്ഷകൻ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഞാൻ എനിക്ക് ഡാൻസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അപ്പം നമ്മൾ പല പ്രേഷകർക്ക് അനുസരിച്ചായിരിക്കും നമ്മൾ ഡാൻസ് ചെയ്യുന്നത് ഇപ്പം നല്ലൊരു എന്താണ് പറയുന്നത് ക്ലാസിക്കൽ ഒരു ഓഡിയൻസ് ആണെങ്കിൽ നമ്മൾ ഒരു ക്ലാസിക്കൽ ഡാൻസ് ആണ് അവിടെ പെർഫോം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഒരു നമ്മുടെ ഭാവങ്ങളിലൂടെ ന കൈകളിലൂടെ അല്ലെങ്കിൽ നമ്മടെ നൃത്തച്ചുവടുകളിലൂടെ നമ്മടെ കണ്ണുകളിലൂടെ നമ്മടെ ശരീരം പ്രേക്ഷകരോട് സംസാരിക്കുകയാണ് നൃത്തം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ കളിക്കുന്ന നൃത്തം ചെയ്യുന്ന സമയത്ത് നമ്മുടെ നമ്മുടെ ശരീരഭാഷയിലൂടെ നമ്മുടെ പ്രേക്ഷകരോട് സംസാരിക്കുകയല്ലെ ചെയ്യുന്നത് ശരീരം പ്രേക്ഷകരോട് സംസാരിക്കുകയാണ് നൃത്തം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ കളിക്കുന്ന നൃത്തം ചെയ്യുന്ന സമയത്ത് നമ്മുടെ നമ്മുടെ ശരീര ഭാഷയിലൂടെ നമ്മുടെ പ്രേക്ഷകരോട് സംസാരിക്കുകയല്ലെ ചെയ്യുന്നത് നമ്മുടെ കണ്ണുകൾ മാറുന്നത് അനുസരിച്ച് നമുക്ക് ലാസ്യമാണെങ്കിൽ രൗദ്രമാണെങ്കിൽ ഇങ്ങനെയുള്ള എന്ത് വികാരങ്ങൾ ആയിക്കോട്ടെ അതെല്ലാം വരുന്നത് നമ്മുടെ കണ്ണുകൾളിലൂടെയും നമ്മുടെ മുഖ ഭാവങ്ങളിലൂടെയും നമ്മുടെ കൈകളിലൂടെയും നമ്മുടെ ചലിക്കുന്ന കൈകളിലൂടെയും ചലിക്കുന്ന കാലുകളിലൂടെയും ഒക്കെയാണ് അപ്പം എന്താണോ ഒരു ഡാൻസർ അവരുടെ മനസ്സിൽ കൊണ്ട് നടക്കുന്നത് വികാരം അത് അതുപോലെ തന്നെ പ്രേക്ഷകരിലേക്ക് ഉണർത്താൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ടും നൃത്തത്തിന് സാധിക്കും ഇനി അതുപോലെ തന്നെ ഒരു സിനിമാറ്റിക് ഡാൻസ് ആയിക്കോട്ടെ അപ്പം നമ്മൾ വളരെ ആ ഒരു അടിപൊളി പാട്ടൊക്കെ ഇട്ട് സ്റ്റേജിൽ ഭയങ്കര അടിപൊളി ആയിട്ട് ഡാൻസ് കളിക്കുമ്പം അത് അതുപോലെ തന്നെ പ്രേഷകരെത്തി അവരും ഒരു പോലെ സദസ്സിൽ ഇരുന്ന് ഡാൻസ്സ് കളിക്കുകയും കൈ അടിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ആവേശം നമ്മൾ സ്റ്റേജിൽ കാണിക്കുന്ന ഒരു ആവേശം ഉറപ്പായിട്ടും അത് പ്രേഷകരിലേക്ക് എത്തിയിട്ട് തന്നെയാണ് അപ്പോൾ അത് ആ ഒരു ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു ഡ്യുവറ്റ് ആണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ കൃഷ്ണനും രാധയുമാണ് നമ്മൾ പെർഫോം ചെയ്യുന്നത് അപ്പ അത് അനുസരിച്ച് ആൾക്കാർ ലയിച്ചിരിക്കുന്നുണ്ട് എന്ന് ഉണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യുന്ന ആ ഒരു പെർഫോമൻസാണ് അപ്പം ശരിക്കും വികാരം ഉൾക്കൊണ്ടു കൊണ്ട് അതിൽ ലയിച്ച് കൊണ്ട് ഒരു ഡാൻസർ ഡാൻസ്സ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ആ ഒരു വികാരം പ്രേഷകരിലും ഉണർത്താൻ കഴിയും കാരണം അങ്ങനെ മനസ്സ് അർപ്പിച്ചാണ് ഓരോ നർത്തകനും അല്ലെങ്കിൽ നർത്തകിയും സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നത് അത് അവരുടെ ചലനത്തിലൂടെ അവരുടെ ആ ഒരു നൃത്ത തതപസ്യയിലൂടെ അവർ ഉണ്ടാക്കി എടുക്കുന്ന ഒരു വികാരമാണ് അപ്പം നമ്മൾ ഒരു ഡാൻസറ് അതിൻ്റെ അർത്ഥം ഉൾക്കൊണ്ടു കൊണ്ട് ആ വികാരം ഉൾക്കൊണ്ടു കൊണ്ട് ആ സ്റ്റേജിൽ അത് പെർഫോം ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് പ്രേഷകരിലേക്ക് എത്തിക്കാം അവരുടെ വികാരത്തെയും ഉണർത്താൻ കഴിയും എന്നുള്ളതാണ് കാണുന്നത് അത് അപ്പോൾ അതുകൊണ്ടാണ് സദസ്സിൽ നിറഞ്ഞ കൈയടികളും അല്ലെങ്കിൽ അങ്ങനെയുള്ള അംഗീകാരമൊക്കെ ഓരോ ഡാൻസേഴ്സിനും അല്ലെങ്കിൽ അത് ചെയ്യുന്ന ആൾക്കാർക്ക് ലഭിക്കുന്നത് അതൊക്കെ ഇതിന്റെ ഒരു തെളിവ് തന്നെയാണ്